എന്റെ സെക്കൻഡ് പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് ആണ് അപ്പോൾ ഞാൻ അത് ഫ്ലിപ്കാർട്ടിൽ അതായത് രണ്ടെണ്ണം കോമ്പോ ആയിട്ട് എടുത്തതാണ് അപ്പം അത് എത്ര രൂപയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുനൂറ് രൂപ എങ്ങാനും ആയിട്ടുണ്ടായിരുന്നുളളൂ പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ അതായത് പില്ലോ കവർ അടക്കം മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപയൊക്കെ ആകും ഒരെണ്ണത്തിന് തന്നെ അപ്പോൾ ആ ലാഭം കണ്ടിട്ട് മേടിച്ചതാണ് അപ്പം ഞാൻ വിചാരിച്ചു കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് അത്യാവശ്യം നല്ല അതായത് നല്ല ഉപകാരമൊക്കെയാണ് പിന്നെ കോട്ടൺ ആണെന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത് പക്ഷേ ഇത് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നോക്കുമ്പോൾ അത് പോളിസ്റ്റർ ആയിരുന്നു പിന്നെ ഞാൻ അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അത് തിരിച്ചു കൊടുക്കാൻ നിന്നില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട് കിടക്ക അതായത് തലയിണയ്ക്ക് പറ്റിയ നല്ല അടിപൊളി കവർ ആണ് കാണാനും നല്ല ഭംഗിയാണ് ഒരു ത്രീ ഡി പ്രിൻറ് പോലെ വരുന്നതാണ് പിന്നെ ഇതിന്റെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പോളിസ്റ്റർ പിന്നെ പോസിറ്റീവ് ഒന്നും കൂടി ഉണ്ട് നമ്മൾ ഇങ്ങനെ വിരിച്ചു ഇടാൻ അതായത് നമ്മൾ പെട്ടെന്ന് മഴക്കാലത്തൊക്കെ ഉണങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസ്റ്റർ ആയത് അത് പോളിസ്റ്റർ ആകുമ്പോൾ ചൂടായിരിക്കും പിന്നെ നമ്മൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല നമ്മൾ ഒന്ന് തിരിയുവോ മറിയുവോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോട്ടൺ പോലെ നിൽക്കില്ല അതിങ്ങനെ ചുരുണ്ടിരിക്കും